ഞാൻ കൂടുതലും പ്രകൃതി സംബന്ധമായുള്ള ചിത്രങ്ങളാണ് എടുക്കാറുള്ളത് പ്രകൃതിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം എന്തെന്ന് വെച്ചാൽ പ്രകൃതിയുടെ സൗന്ദര്യം എല്ലാവർക്കും ഇഷ്ടമാണ് അതുപോലെതന്നെ അത് എല്ലാവർക്കും ആസ്വദിക്കാൻ കഴിയുന്ന ഒന്നാണ് നമ്മുടെയെല്ലാം മനസ്സിന് വളരെയധികം സന്തോഷം തരുന്ന ചിത്രങ്ങൾ ആയിരിക്കും പ്രകൃതിയുടേത് അതുപോലെ നമ്മൾ ഒരു ചിത്രം എടുക്കുമ്പോൾ അതുപോലെ തന്നെ പുതിയ പുതിയ കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും അതായത് എല്ലാ ചിത്രങ്ങൾക്കും പ്രത്യേക ഭംഗി പ്രകൃതിയിൽ നിന്ന് കിട്ടും അതുപോലെ അപ്രതീക്ഷിതമായ പല ചിത്രങ്ങളും നമ്മൾക്ക് പ്രകൃതിയിൽ നിന്ന് കിട്ടും അതുപോലെ പ്രകൃതിയിലുള്ള ജീവജാലങ്ങളുടെ മനോഹരമായ ചിത്രങ്ങൾ നമുക്ക് എടുക്കാൻ സാധിക്കുന്നതാണ് അതുകൊണ്ടുതന്നെ പ്രകൃതി സംബന്ധമായ എല്ലാ ചിത്രങ്ങളും എടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെയുള്ള ചിത്രങ്ങൾ തന്നെയാണ് ഞാൻ കൂടുതലായിട്ടും എടുക്കാറുള്ളത്